ഇന്ന് സ്മാർട്ട് ഫോണുകൾ നമ്മുടെ ജീവിതം വളരെയധികം മെച്ചപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ കാലം മുൻപ് മറ്റുള്ളവരുടെ സുഖവിവരങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അറിയുന്നതിന് വേണ്ടി ഒക്കെ കത്ത് മുഖേനയാണ് അറിഞ്ഞിരുന്നത് അതാണെങ്കിൽ നമ്മള് പോസ്റ്റ് ഓഫീസിൽ പോയി ഇല്ലെൻറ്റ് വാങ്ങി കൊണ്ടു വന്ന് കത്തെഴുതി പോസ്റ്റ് ചെയ്ത് വളരെ ദിവസങ്ങൾ എടു എടുത്തിട്ടായിരിക്കും അത് അവിടെ ചെല്ലുന്നത് അതിൻ്റെ മറുപടി നമുക്ക് ലഭിക്കുന്നതും പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരാളുടെ സുഖവിവരം അറിയുന്നതിന് വേണ്ടിയിട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് സാധിക്കുന്നു അത് മാത്രമല്ല ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തന്നെ നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ദൂരത്തോളം ഒരാ ആളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കത്ത് എഴുതണം അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി അവരെ അറിയിക്കണം ഇത് മൂലം വളരെയധികം സമയം നഷ്ടമാണ് ഉണ്ടായിരുന്നത് അതുമാത്രമല്ല ഈ കത്ത് എഴുതി അയച്ച് അയച്ചു കഴിഞ്ഞ് ആ ആൾ നമ്മ എത്തുമ്പോഴേക്കും ഇവിടെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിരിക്കും പക്ഷേ ഇന്ന് അതിൻ്റെ ആവശ്യം വരുന്നില്ല ഉടനെ തന്നെ ഫോൺ എടുത്ത് വിളിക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടന്ന് കാര്യങ്ങൾ നടക്കുന്നു ഇതുമൂലം വളരെയധികം സമയ ലാഭമാണ് ഉണ്ടാകുന്നത് അതുമാത്രമല്ല നമുക്ക് ഫോണിൽ കൂടെ ഇപ്പം വിളിക്കാൻ ഉള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ചാറ്റ് ചെയ്യാം അങ്ങനെ അവരുടെ സുഖവിവരം അന്വേഷിക്കാം അതുപോലെ നമുക്ക് അവരെ കാണണന്നുണ്ടെങ്കില് നമുക്ക് വീഡിയോ കോൾ ചെയ്യാം അങ്ങനെ പലയധികം ഫെസിലിറ്റീസ് ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണുകളിൽ ഉണ്ട് അത് മാത്രമല്ല നമുക്കിപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ അതായത് നമുക്ക് സംശയമുള്ള സംശയമുള്ള കാര്യങ്ങൾ അറിയുന്നതിന് നമുക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ലഭിക്കുന്നതാണ് ഒരു ആൾ നമ്മളോട് ഒരു സംശയം ചോദിച്ചാൽ നമുക്കത് അറിയില്ലെങ്കിൽ പോലും നമുക്ക് വളരെ കോൺഫിഡൻസോടുകൂടി അതിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരം നമുക്ക് ലഭിക്കുകയും അത് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഇതുവഴി നമുക്കും അറിവ് കിട്ടും അവർക്കും അറിവ് കിട്ടും ഈ സ്മാർട്ട് ഫോണുകൾ ഇന്നത്തെ കാലത്ത് വളരെ അധികം ഉപകാരപ്രദമാണ്